ഞാൻ താമസിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പോള് അതിന്റേ ഇതായിട്ടുള്ള ഗുണങ്ങളും മോശവശങ്ങളും നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾക്കുണ്ടാവും സ്കൂളുകളൊക്കെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് തമ്മിലുള്ള സൗഹൃദം സാഹോദര്യം ഇതൊക്കെ വളർത്തി എടുക്കാനും ഒരു കുട്ടിക്കും മറ്റൊരു കുട്ടിക്ക് എന്തെങ്കിലും പോരായ്മ വന്നുകഴിഞ്ഞാല് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പിങ് മെന്റാലിറ്റിയും കൂടുതലായി കാണപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിലാണ് അപ്പോള് പട്ടണ പ്രദേശ മറ്റു പട്ടണങ്ങളിലെ സ്കൂളുകളെ അപേക്ഷിച്ച് നിങ്ങളുടെ പ്രദേശത്തെ സ്കൂളിനെക്കുറിച്ച് എന്താണ് നല്ല അഭിപ്രായം എന്ന് ചോദിച്ചാല് ചിലപ്പോള് സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളിലായാലും പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പുറകോട്ട് ആണെങ്കിൽപ്പോലും ബാക്കിയുള്ള കുട്ടികൾ തമ്മിലുള്ള പരസ്പര ഐക്യം സാഹോദര്യം അതുപോലെതന്നെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇവരെ ഗ്രാമപ്രദേശങ്ങളിലെ എൻ്റെ നാട്ടിലുള്ള സ്കൂളുകളിലെ കുട്ടികള് വളരെ മുൻപന്തിയിലാണ് അതുപോലെതന്നെ വിദ്യാഭ്യാസ രംഗത്തായാലും അവര് വളരെ മുൻപന്തിയിലാണ് വലിയ ടെക്നോളോജികള് കുറിച്ച് ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽപ്പോലും അവര് അവരുടേതായിട്ടുള്ള രീതിയില് പഠിച്ചുവളർന്ന് നല്ല റാങ്കോടെകൂടെ പാസ്സാകുന്ന കുട്ടികളാണുള്ളത്